കൈ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ വിപണിയിൽ റെഡി മെയ്ഡ് വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്നത് അതിൻ്റെ ക്വാളിറ്റിയിലും പിന്നെ ഈ കൈ കൊണ്ട് നിർമ്മിക്കുന്ന ആൾക്കാരുടെ ഭാവനയിലും കഴിവിലും തന്നെയാണ് കൈത്തറി വസ്തുക്കൾ അഥവാ കൈ കൊണ്ട് നിർമിച്ച വസ്തുക്കൾ അവ ഓരോന്നും ഓരോന്നിൽ നിന്നും വ്യത്യസ്തപ്പെട്ടതായിരിക്കും ഓരോന്നിനും പ്രത്യേക ശൈലിയും പ്രത്യേക ഭംഗിയും നിൽക്കുന്നതായിരിക്കും റെഡി മെയ്ഡ് വസ്തുക്കൾ യന്ത്രനിർമ്മിതമായതു കൊണ്ട് അതിന് പല പാകപ്പിഴകളും അത് അതിൻ്റെ കലാ മൂല്യത്തിൽ ഉള്ള കുറവും മറ്റ് കാര്യങ്ങളും വരുന്നതായിരിക്കും പക്ഷെ കൈത്തറി വസ്തുക്കൾ ഓരോന്നും വളരെ വ്യക്തമായും വളരെ ശ്രദ്ധയോട് കൂടിയും ചെയ്യുന്ന ഒരു പ്രവർത്തി ആയതുകൊണ്ട് ഓരോന്നിലും പൂർണ്ണമായ ഒരാളുടെ അർപ്പണം ഉള്ളതുകൊണ്ടും അത് വളരെ മികവുറ്റതും അതുകൊണ്ടുതന്നെ അതിന് ഒരുപാട് ആരാധകരും ഇപ്പോഴും അതിന് നല്ല വിപണി മൂല്യവും ലഭിക്കുന്നതും ആണ്